ഹലോ കേൾക്കുന്നുണ്ടോ എനിക്ക് എനിക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് ആയിരുന്നു

ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു രണ്ട് വന്ന ടൈമിൽ ടെസ്റ്റ് ചെയ്തതാണ് ഞാൻ കോഴിക്കോട്

അത് വിട്ടുമാറാത്ത ചുമയും ഇത് പനിയൊക്കെ ഉണ്ടായിരുന്നു കഫക്കെട്ടായിരുന്നു മെയിൻ അപ്പോൾ എന്തൊക്കെയോ സംശയം തോന്നി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ടെസ്റ്റെ ചെയ്തപ്പോൾ കോവിഡ് കോവിഡാന്ന് പറഞ്ഞ് പിന്നെ കോ ക്വാറൻറ്റയിനിലൊക്കെ ആയിരുന്നു കുറച്ച് കാലം ഇല്ല കൂടെയുള്ള ആർക്കില്ലായിരുന്നു ഇത് ട്രാവല് ചെയ്തപ്പോൾ അതുവഴി കിട്ടിയതാണോന്ന് ചെറിയൊരു സംശയമുണ്ട് ഇല്ല എവടെന്നാന്നറിയില്ല

ആ സ്മെല്ലിണ്ട് ആ പോയിരുന്നു ഒന്നും മറ്റേ അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടീല ടേസ്റ്റൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു ഇന്നിപ്പോൾ പതിനാല് ദിവസം വൈറ്റമിൻ സീൻറ്റെയാ ആ അതുണ്ട്

ഇല്ല വീട്ടിലാർക്കുമില്ല എനിക്ക് മാത്രമേ ഉള്ളൂ ഇല്ല പനിയില്ല മേ തൊണ്ടവേദന ഉണ്ടായിരുന്നു ചൊ ആ ചുമയുണ്ട് ചുമേൻ്റെ മരുന്ന് തീർന്നുപോയി ആ ആ

ആ ഉണ്ട്

ആ ആ തലവേദനയുണ്ട് ആയി ആ ആ ആ പിടിക്കാം പിടിക്കാം എന്നാൽ ശരി